ഹലോ ബിന്ദു ഡോക്ടർ അല്ലേ ആ ആ ഞാൻ രാധിക ഡോക്ടറേ കാസർഗോഡു നിന്ന് വിളിക്കുന്നത് ആ ഡോക്ടർ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുറച്ച് കുറച്ചായി പറയാം പിന്നെ എനിക്ക് പിന്നെ ലേഡി ഡോക്ടറല്ലേ അത്കൊണ്ട് എല്ലാം പറയാലോ നമ്മൾക്ക് എനിക്ക് പിന്നെ നമ്മുടെ സ്ത്രീകൾക്ക് സംബന്ധമായിട്ടുള്ള പി സി ഒ ഡി പ്രശ്നം ഉണ്ട് കുറേ കാലമായി മരുന്ന് കഴിക്കുന്നു പക്ഷെ ഒന്നിലും അത് ശരി ആയി വരുന്നില്ല കുറച്ച് കാലം ആവുന്നുണ്ടെങ്കിലും പിന്നെ അത് വീണ്ടും അതെ രീതിയിൽ വരുന്നുണ്ട് ആ ആ പിന്നെ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അസുഖങ്ങൾ വരുന്നുണ്ട് തടിയും ക്ഷീണം അങ്ങനെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് എന്ത് ചെയ്യണം ഡോക്ടറെ

ആ ആ ആ

അതെ അതെ അതെ ആ ആ ആ ആ

അതെ അതെ ആ

ആ ആ ആ ആ ആ ആ ആ

ആ ആ ആ അതെ പക്ഷെ ഇത് എനിക്ക് ഇപ്പോൾ അല്ല ഡോക്ടറെ എനിക്ക് മറ്റേ നമ്മുടെ മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയം മുതൽ നമ്മൾക്ക് എനിക്ക് ഇതേ പ്രശ്നമായിരുന്നു ഉള്ളത് പിന്നെ ഞാൻ മരുന്ന് മാറി മാറി കഴിച്ച് ആയുർവ്വേദം കുറേ കഴിച്ച് പിന്ന അതിൽ കുറവുണ്ടായില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഹോമിയോ കഴിച്ചു അതും അപ്പം മാത്രം പിന്നെ ശരി ആയില്ല പിന്നെ ഇംഗ്ലീഷ് കഴിച്ചു ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന സമയത്താണ് പിന്നെ ഹോർമോണിൻ്റെ ടാബ്ലെറ്റ് ആണ് അവർ തരുന്നുള്ളത് അത് കഴിക്കുന്ന സമയത്ത് ആ ആ കഴിക്കുന്ന സമയത്താവും അത് നിർത്തുകയേ വേണ്ടൂ ഇതേ പ്രശ്നം ആണ് വരുന്നത് പിന്നെ രണ്ട് ഡെലിവറി കഴിഞ്ഞു അപ്പോൾ ആ രണ്ട് ഡെലിവറിക്കും ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് പീരിയഡ്സ് വന്നിട്ട് ആ അതിലെ ആണ് ഉണ്ടായത് പിന്നെ ഞാൻ നിർത്തി നിർത്തിയ ശേഷം വീണ്ടും ഇതേ ഇതായി വന്നിട്ടൂണ്ട് അങ്ങനെയാണ് എന്തല്ലോ

ആ ആ

ആ ഉണ്ട് ഉണ്ട്

ആ ആ ആ

ആ ആ ആയിക്കോട്ടെ പക്ഷെ നമ്മൾക്ക് ഇതിൽ കറക്റ്റ് സമയത്ത് വരാത്തതിൻ്റെ അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാലുവേദന നടുവേദന മറ്റേ മാനസികമായിട്ട് ഭയങ്കര ദേഷ്യം സംഘർഷങ്ങൾ ആ മുടി കൊഴിച്ചൽ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പിന്നെ നമ്മൾക്ക് എവിടെ എങ്കിലും പുറത്ത് പോവുന്ന സമയത്ത് അത് നമ്മൾക്ക് ശരി ആയി വരാതെ ഇരിക്കുമ്പോൾ എങ്ങനെ ധൈര്യം ഇല്ലാത്ത ഒരു അവസ്ഥ ഇങ്ങനെ എല്ലാം ഉണ്ടാവും നല്ല അതാണ് പ്രശ്നത്തെ മാറ്റും ഇപ്പോൾ ഇതിന് മരുന്ന് കുറേ എടുക്കണോ ഡോക്ടറ് ആ ആ

ആ ആ ഓക്കേ ആ ഓക്കേ ഡോക്ടർ ശരി ശരി ടൈമോ ടൈമ് ഓക്കേ ഡോക്ടർ താങ്ക് യു താങ്ക് യു